വായിക്കാറുണ്ട് മദര് തെരേസയെ പറ്റി മദര് തെരേസയെ പറ്റി വായിക്കാറുണ്ട് മദര് തെരേസയെ പറ്റി ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് മദര് തെരേസ പൊതു വഴിയിൽ ഇറങ്ങി അവിടെ കിടക്കുന്ന പാവപ്പെട്ട എല്ലാ രോഗികളേയും അതായത് കണ്ടെത്തി കുഷ്ഠരോഗികളെ പരിചരിച്ച് അവരെ നല്ല രീതിയില് കഴുകി വൃത്തിയാക്കി അവരേക്കൊണ്ട് താമസിപ്പിക്കുന്ന ആ രീതി അതായത് പാവപ്പെട്ട ജനങ്ങളോട് പെരുമാറുവാനുള്ള കഴിവ് മദര് തെരേസയ്ക്ക് ഉണ്ട് അതുകൊണ്ട് മദര് തെരേസയെ ഞാന് കൂടുതൽ ഇഷ്ടപ്പെടുന്നു മദര് തെരേസ ഏത് തെരുവിലും ഇറങ്ങിച്ചെന്ന് ഒരു അറപ്പോ ഒരു വെറുപ്പോ ഒന്നും തന്നെ ഇല്ലാതെ ഏത് പാവപ്പെട്ട മനുഷ്യനേയും ദരിദ്രനാകട്ടെ പാവപ്പെട്ടവരാകട്ടെ ധനികനാകട്ടെ ആര് എന്താണെന്ന് പോലും നോക്കാതെ കുഷ്ഠം ബാധിച്ച ജനങ്ങളെ എടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുത്താമസിപ്പിച്ച് അവര്ക്ക് വേണ്ട കാര്യങ്ങളും ചെയ്ത് മരുന്നുകളും ചെയ്ത് നല്ല രീതിയില് അവരെ നോക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് അവരെ ഇഷ്ടപ്പെടുവാന് കാരണം